ഇപ്പോഴത്തെ ഈ ഒരു സൊസൈറ്റിയിൽ ഡ്രസ്സെന്നു പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനം തന്നെ അപ്പം ഈ ഡ്രസ്സിൽ തന്നെ ടു ടൈപ്സ് ഓഫ് ഡ്രസ്സുണ്ട് ഒന്ന് ഈ മഷീൻസ് മേക്ക് ചെയ്യുന്നൊരു ഡ്രസ്സും പിന്നെ അല്ലാണ്ട് കൈ കൊണ്ട് മേക്ക് ചെയ്യുന്ന ഡ്രസ്സുണ്ട് സോ ഈ രണ്ടും തമ്മിലുള്ള ഡിഫ്റൻസെന്നു പറയുമ്പോൾ ഇപ്പം നമുക്കൊരു ഏകദേശം ഒരു ഡിഫറൻസ് പറയുകയാണെങ്കിൽ ആദ്യം എന്ന് മഷീൻ കൊണ്ട് തയ്ക്കുന്ന ഒരിതു ഞാൻ പറയാം മഷീൻ കൊണ്ടാണെങ്കിൽ ഇപ്പം നമുക്കൊരു ക്ലോത്ത് എടുക്കുന്നു ആ ക്ലോത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസൈൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു ആ ഇത് അങ്ങനെ തന്നെയത് പ്രിൻ്റ് ഔട്ടായിട്ട് കൊടുക്കും അങ്ങനെ വരുന്ന ഇതിൽ പ്രശ്നം എന്നായെന്നു വെച്ചാൽ ഫസ്റ്റെന്നു പറയുമ്പോൾ ഈ പ്രിൻ്റ് ഔട്ട് ചെയ്യുന്ന ഈ മഷീൻ വന്ന് പ്രിൻ്റ് ഔട്ട് ചെയ്യുന്ന സാധനം നമ്മൾ കറക്റ്റുദ്ദേശിക്കുന്ന ആ ഒരു ഡ്രസ്സിൻ്റെ സൈഡ് തന്നെ വരണമെന്നില്ല സപ്പോസ് അത് ഓപ്പോസിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളുദ്ദേശിക്കാത്ത വേറേതെങ്കിലും സ്ഥലത്തിലായിരിക്കാം അതുപോലെ തന്നെ ഈ പ്രിൻ്റ് ഔട്ട് ഡ്രസ്സെന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ഇതാകത്തില്ല അതായത് ഇപ്പൊരു കോട്ടൺ ഡ്രസ്സിൽ നമ്മളൊന്ന് പ്രിൻ്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് പെയിൻറ്റിങ്ങാണെങ്കിൽ പെയിൻറ്റിങ്ങാണെങ്കിൽ മീൻസ് സംടൈംസ് മഷീൻ കൊണ്ട് ചെയ്യുമ്പോൾ അത് സ്പ്രെഡായി പോകാൻ ചാൻസുണ്ട് അല്ലെങ്കിലിങ്ങ് പൊസിഷൻ മാറ്റ് ഇതുണ്ട് പ പക്ഷെ ഒരു ഒരു ടീംസിനോടു നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇതിലേതാണ് ഇഷ്ടമെന്നു ചോദിച്ചാൽ എല്ലാവരും പറയും ഇതു നല്ലതാണ് കാണാൻ നല്ല രസമുണ്ട് ഭംഗിയുണ്ട് എന്നൊക്കെ പറയും പക്ഷെ ഇതു വലിയൊരു കഷ്ടപ്പാടല്ല ഒരു മഷീൻ മഷീനോട് നമുക്ക് ഒരു ഏകദേശമൊരു പ്രി ഒരു ഡിസൈൻ കൊടുക്കുന്നു അത് ജസ്റ്റ് അടിച്ചു തരുന്നു അത്രയേ ഉള്ളു പക്ഷെ ഈ ഒരു കൈ കൊണ്ട് മേക്ക് ചെയ്യുന്ന ഡ്രസ്സിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ കൂടുതലായിട്ട് കേ കെയർ ചെയ്ത് ഒരു ഡ്രസ്സിന് ഒരു ഡ്രസ്സ് ഒരു ഷർട്ടാണെങ്കിൽ ആ ഒരു ഷർട്ടിനെ മേക്ക് ചെയ്തെടുക്കാൻ തന്നെ അവർ കുറേ കഷ്ടപ്പെടും അതായത് അവരുദ്ദേശിക്കുന്ന ഒരു പ്രിൻ്റ് ഔട്ടാണെങ്കിലും ഒരു ഡിസൈനാണെങ്കിലും ഏതായാലും അവർ കൈ കൊണ്ട് തന്നെയതു ചെയ്യുന്നത് അപ്പം അവർക്ക് കൂടുതൽ സമയമെടുക്കും പിന്നെ അവർ കൈ കൊണ്ടു തന്നെ ചെയ്യുമ്പോൾ അവർക്കായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ടാകും ബട്ട് അവർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഫുൾ ക്വാളിറ്റീസായിരിക്കും അതായത് ഇപ്പോൾ ഒരെക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ തമിഴ്നാട്ടിൽ കാഞ്ചീപുരം പട്ട് ഈ കാഞ്ചിപുരം പട്ടെന്നു പറയുമ്പോൾ ഈ പട്ട് സാരിയിൽ അവർ കൈ കൊണ്ട് ഒരു മഷീൻ അതായത് ഒരു വുഡ്ഡായിട്ടുള്ളൊരു മഷീനിൽ ഈ സാരി ഇങ്ങനെ വെയ്ക്കുന്നു ആ ഇവർ കയ്യും കാലിങ്ങനെ സ്വയ്പ് ചെയ്ത് സ്വയ്പ് ചെയ്ത് ആ ഡിസൈനവർ കൊണ്ടു വരുന്നു ഒരു സ് സാരി മേക്ക് ചെയ്യാൻ തന്നെ അവർക്ക് വൺ വീക്ക് വേണം സോ ഈ കൈ കൊണ്ട് കൂടുതൽ കെയർ ചെയ്ത് ഫുൾ പ്യൂർ കോട്ടൺ അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റിയിലൊരു ഡ്രസ്സ് എല്ലാവരും ആഗ്രഹിക്കും അത് അതു കാരണം കൊണ്ടാണ് മേ ബി എല്ലാവരും ഈ ഒരു കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഡ്രസ്സിനെ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം പ്രിൻ്റ് ഔട്ട് ഡ്രസ്സാണെങ്കിൽ ഒന്ന് ഇപ്പോഴത്തെ ഡ്രസ്സ് കോഡെന്നു പറയുമ്പോൾ കോട്ടൺ ഭയങ്കര കുറവാണ് അതിനു പകരം വരുന്നതാണ് ഈ സിൽക്ക് വെൽവെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ